നമ്മളുടെ നമുക്കെങ്ങനെ വേണമെങ്കിലും അ നൃത്തത്തെ ആവിഷ്കരിക്കാവുന്നതാണ് ഇന്നത്തെ കാലത്തു ഒരു മോഡേൺ സോങ് എടുത്തു നമുക്ക് ക്ലാസ്സിക രൂപത്തിലും ക്ലാസിക്കൽ സോങ് എടുത്തു മോഡേൺ രൂപത്തിലും അവതരിപ്പിക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഒരുപാടാൾക്കാർ അങ്ങനെ അവതരിപ്പിക്കാറുണ്ട് എനിക്കതിനോട് എപ്പോഴും യോജിപ്പാണ് കാരണം നമുക്ക് എന്തൊരു കാര്യമുണ്ടെങ്കിലും അത് നമുക്ക് നൃത്തത്തിലൂടെ നമുക്ക് മറ്റുള്ളോരാളിലേക്കെത്തിക്കാന്നു പറയുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യം നമ്മൾ കാണികൾക്കു ആസ്വദിക്കുന്ന രീതിയില് നമുക്ക് ആ കഥയായിക്കോട്ടെ കവിതയായിക്കോട്ടെ അത് നമുക്ക് അവരിലേക്കെത്തിക്കാൻ പറ്റാന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നല്ല കാര്യം ഇപ്പോൾ കവിതകള് നമുക്ക് പറയാനായിട്ട് ശരിക്കും നമുക്ക് നൃത്തമൊക്കെ യൂസെയ്യാവുന്നതാണ് പണ്ടത്തെ ഒരുപാട് രാമായണ കഥകൾ പോലുള്ള മഹാഭാരതം അങ്ങനെ ഉള്ള ഒരുപാട് കഥകള് അങ്ങനെയുള്ള കഥകളൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മൾ നൃത്തത്തെ ഹിന്റിയാറുണ്ട് ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ ഞാനാണെങ്കിൽ പോലും പല കഥകളും കവിതകളും കേൾക്കുന്ന സമയത്തു അതിനുള്ളിലുള്ള ഓരോ കൺടെന്റും എൻ്റെ കയ്യില് ചില സമയത്തു മുദ്രകളായിട്ട് വരാറുണ്ട് ചില സമയത്തു മുഖത്ത് നമ്മുടെ ആംഗ്യങ്ങളായിട്ട് വരാറുണ്ട് അപ്പോൾ ഞാൻ അത് അവതരിപ്പിച്ചു നോക്കാറുണ്ട് അപ്പോൾ ഈ കഥകളും കവിതകളും നമ്മളിങ്ങനെ അവതരിപ്പിക്കുന്ന സമയത്തു അത് മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് വലിയ കാര്യമെന്ന് പറയുന്നത് അങ്ങനെ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതു കഥകളും കവിതകളും വളരെ കോണ്ഫിഡന്റോടെ മറ്റുള്ളവരിൽ എത്തിക്കാൻ നമുക്ക് കഴിയും ഇപ്പോൾ ഏതാണ് കണ്ണ് പോയിട്ടുള്ള ഗാന്ധാരിയുടെ വിലാപം നമ്മള് ഞങ്ങള് കുറച്ചുപേര് കൂടി ചേർന്നുകൊണ്ട് നൃത്തായിട്ടു അവതരിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രാമനും സീതയും കാട്ടില് പോകുന്നൊരു സന്ദർഭം ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അയ്യപ്പൻ അയ്യപ്പൻ മലയിൽ മലക്ക് പോയിട്ട് പുലി പുലിനെ പിടിച്ചിട്ടു വരുന്ന പുലിപ്പാ ല് കൊണ്ട് വരുന്ന ഒരു സന്ദർഭമുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഞങ്ങൾ എന്തെയ്തിട്ടുണ്ട് അഭിനയിച്ചു നൃത്ത രൂപത്തിലേക്ക് ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം പണ്ടത്തെ കഥകളായിരുന്നു ആ കഥകള് അറിയാത്ത ഇന്നത്ത് ഇന്നത്തെ ഒരു സമൂഹത്തിലേക്ക് ഞങ്ങൾക്ക് നൃത്തരൂപത്തിലേക്കു അവരിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട് ഏതു കവിതയാണെങ്കിലും നമുക്കത് സാധിക്കും തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുക നല്ല നല്ല നല്ല നല്ല മനോഹരമായിട്ടുള്ള കാര്യങ്ങള് വളരെ കഥകളും ചിന്തിക്കാനുള്ള കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തി നമ്മൾ കുറെ നല്ല രീതിയില് സംസാരിക്കാൻ സംസാരിക്കാൻ അതില് കുറെ കൺടെന്റ് ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും ഞങ്ങള് നൃത്തം എന്ന് പറയുന്നത് ഞങ്ങൾ ആ ഒരു രീതിയിലായിരിക്കും ആവിഷ്കരിക്കാൻ പറ്റുക ഏതു കാര്യം ആയിക്കോട്ടെ നമുക്കത് നൃത്തം നമുക്ക് ഇപ്പോൾ ദേഷ്യമാണെങ്കിലും രൗദ്രാണെങ്കിലും മൗനാണെങ്കിലും ഏതോ ലജ്ജയോ വാത്സല്യം അങ്ങനെയുള്ള ഒരുപാട് ഭാവങ്ങൾ നമുക്ക് നൃത്തത്തിൽ കൂടെയോ ഉൾപ്പെടുത്തി അവരോട് സംസാരിക്കാനും അല്ലെങ്കിൽ അവരിലേക്ക് എത്തിക്കാനും നമുക്കെന്തെയ്യുന്നുണ്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ടു ഏതു കവിത വേണെങ്കിലും നമുക്കെന്തെയ്യാൻ പറ്റും ഈ നൃത്ത രൂപത്തില് നമുക്കാവിഷ്കരിക്കാൻ സാധിക്കുന്നതാണ്